ഹലോ ഓല ടാക്സി അല്ലേ ഞാൻ ലക്ഷ്മിയാണ് ഞാനൊരു ട്രിപ്പിന് വേണ്ടിയിട്ട് വണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് എനിക്ക് തിരുവനന്തപുരം വരെ ഒന്ന് പോവണം അതിന് വേണ്ടിയിട്ടാണ് ട്രിവാൻഡ്രം വരെ പോവണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതിനൊരു വണ്ടി വേണം ഞങ്ങൾക്ക് പോവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മൊത്തത്തിൽ ഒരു അഞ്ച് പേരുണ്ടാവും ഞങ്ങൾക്ക് ഇരിക്കാവ് കംഫോട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു വണ്ടി ആയിരിക്കണം വേണ്ടത് ഞങ്ങൾക്ക് എന്താണ് ഞങ്ങൾക്ക് പോവേണ്ട ദിവസം എന്ന് പറഞ്ഞാൽ മറ്റന്നാളാണ് ഞങ്ങൾക്ക് പോവേണ്ടത് മറ്റന്നാൾ പോയിട്ട് അവിടെ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അവിടെ പോയി ചെയ്തിട്ട് ഞങ്ങൾക്കൊരു അതിൻ്റെ പിറ്റേ ദിവസം തിരിച്ച് വന്നാൽ മതി ഞങ്ങൾക്ക് അപ്പം മൊത്തത്തിൽ ട്രിവാൻഡ്രം അല്ലെ തിരുവനന്തപുരത്തെക്കുറിച്ച് അറിയുന്ന സ്ഥലങ്ങളൊക്കെ അറിയുന്ന ഒരാളാണെങ്കിൽ വളരെ നന്നായിരിക്കും കുറച്ചുകൂടി എളുപ്പമായിരിക്കും കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനത്തെ ഒരു ഡ്രൈവറിനെ വിട്ടാൽ നന്നായിരിക്കും പിന്നെ ഭയങ്കര സ്മൂത്ത് ഡ്രൈവിങ്ങ് ആയിട്ടുള്ള ഒരാളായിരിക്കണം വണ്ടി ഓടിക്കുന്നത് എത്ര രൂപയാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൺ ഡേ അങ്ങനെ പോയി വാ തിരിച്ച് വരാൻ എത്ര രൂപയാവും എന്നുള്ള കാര്യം കൂടി ഒന്ന് പറയണേ പിന്നെ അറിയാമല്ലോ ഞങ്ങൾ ഒരു കുഞ്ഞ് കുട്ടിയും പിന്നെ ഒരു മുതിർന്ന വയസാ പ്രായമുള്ളൊരു സ്ത്രീയുമുണ്ട് കൂടെ അപ്പോ ഒരു അപ്പം അതിനനുസരിച്ചിട്ട് വണ്ടി ഓടിക്കാവു ഓടിക്കാ ഓടിക്കുന്ന ഒരാളായിരിക്കണം ഭയങ്കര മോശപ്പെട്ട വാക്കുകളൊന്നും ഉപയോഗിക്ക ഉപയോഗിക്കരുത് പോവുമ്പോൾ പോവുന്ന ടൈമിലൊന്നും അപ്പോൾ നല്ല രീതിയിൽ പെരുമാറാൻ അറിയുന്ന ഒരാളാണെങ്കിൽ വളരെ നന്നായിരിക്കും അപ്പം മൊത്തത്തിൽ ഇങ്ങനത്തെ ഒരു ഞങ്ങൾക്ക് മറ്റന്നാളാണ് പോവേണ്ടത് അപ്പം നിങ്ങളുടെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് ഒരു ആൻസർ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാനായിരുന്നു എത്രയാവും റേറ്റ് എന്നുള്ള കാര്യം ഒന്നും പറഞ്ഞുതരണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോയിട്ട് ചെയ്യാനുള്ളതല്ലേ കുറേ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാനാണ് അപ്പം എപ്പോഴാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാം രാവിലെ ഒരാറ് മണിക്ക് വ വന്നാൽ ഞങ്ങൾ വന്നാൽ മതി നമുക്ക് നമുക്കവിടെ ഒരു ഉച്ചയാകുമ്പോഴേക്ക് എത്തിയാൽ മതി നിങ്ങൾ അപ്പം അതിനനുസരിച്ച് എപ്പം എപ്പം റെഡി ആവണം എന്നുള്ള കാര്യം കൂടി ഒന്ന് പറഞ്ഞ് തരണം എന്നാൽ പിന്നെ അതിനനുസരിച്ചിട്ട് ഞങ്ങൾക്ക് അവിടെ ഉച്ചയ്ക്ക് ഒരു മൂന്ന് മൂന്നരയാവുമ്പോൾ എത്തിയാൽ മതി എന്നിട്ട് പോയിട്ട് തിരിച്ച് വരാം പിറ്റേ ദിവസം ഒരു മൂന്നര ആവുമ്പോഴേക്കും പിറ്റേ ദിവസം രാത്രി ഒരു പന്ത്രണ്ട് മണി ആ രാത്രി ആയാലും സ് കുഴപ്പമില്ല രാത്രി ആകു ആവുമ്പോഴേക്കും ഇവിടേക്ക് തിരിച്ചെത്തിയാൽ മതി ഞങ്ങൾക്ക് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് എനിക്ക് ചോദിക്കാനുള്ളത് എ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊന്ന് എത്രയും പെട്ടെന്ന് അറിയിച്ചാൽ നന്നായിരിക്കും